നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള കൃഷികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അരി ആയാലും ഗോതമ്പായാലും വാഴ കൃഷി ആയാലും പയറായാലും സസ്യങ്ങളായാലും അങ്ങനെ പല പല വിധത്തിലുള്ള ഒരുപാട് ഒരുപാട് വിധത്തിലുള്ള കൃഷികൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ പുറത്തും ഇതുപോലെയുള്ള അരി കൃഷി ഗോതമ്പ് കൃഷി പയർ മഞ്ഞൾ അങ്ങനെ പല പല വിധത്തിലുള്ള പല പല കൃഷികൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ കഴിക്കുന്ന വസ്തുക്കളായാലും അതല്ല എന്ന് ഉണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ വസ്ത്രത്തിനുള്ള ഓരോ കമ്പിളി പുതപ്പൊക്കെ ഉണ്ടാക്കുന്നത് പോലെയുള്ള ഒരുപാട് അങ്ങനെ സിൽക്ക് പോലത്തെ ഒരുപാട് കൃഷികൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് അപ്പം അതിനൊക്കെ പലതരത്തിലുള്ള പലതരത്തിൽ രീതികളിലാണ് അതിൻ്റെ ഒക്കെ വില വരുന്നത് ചില സമയത്ത് അതിന് വില കൂടും ചില സമയത്ത് അതിന് കുറയും ചിലപ്പോൾ അരിക്ക് മുപ്പത്തഞ്ച് രൂപയായിരിക്കും ചിലപ്പോൾ അതിന് നാൽപ്പത് ആകും ചിലപ്പോൾ അൻപത് ആകും പല രീതിയിലാണ് അതിൻ്റെ വിലകളും കാര്യങ്ങളൊക്കെ വരുന്നത് അടുത്ത കാലത്തായി പലചരക്കുകളുടേയും പച്ചക്കറികളുടേയും വിലയിലുള്ള മാറ്റം എന്താണെന്ന് വെച്ചിട്ട് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കറക്റ്റ് ടൈമിൽ മാറ്റങ്ങൾ വരികയാണെന്ന് അല്ല അതിൽ സത്യം പറഞ്ഞാൽ കൂടിയിട്ടുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളു പ പണ്ടത്തെ പോലെയല്ല പണ്ട് ഇപ്പം ഒരു രൂപക്ക് അര കിലോ തക്കാളി കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇപ്പം അര കിലോ കിട്ടുകയില്ല ഇപ്പം മുപ്പത് രൂപയ്ക്ക് ആയിരിക്കും അര കിലോ തക്കാളി കിട്ടുക അതിന് അതിന് കാരണം അറുപത് രൂപ ആയിരിക്കും ആ തക്കാളിക്ക് വരിക ചിലപ്പോൾ അതേ സമയത്ത് തന്നെ ചിലപ്പം കുറഞ്ഞ് കൂടായ്ക ഇല്ല ഇപ്പം സീസൺൻ്റെ ടൈം ആയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തക്കാളിക്ക് തക്കാളി അങ്ങ് ഒരുപാടുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ അത്രയൊന്നും പൈസ വരാൻ സാധ്യത ഇല്ല അപ്പം അത് അതിന് അനുസരിച്ച് ആ തക്കാളിയുടെ വില കുറയും അത് അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കളുടെ വില കുറയും ഇപ്പം തക്കാളി ആയാലും ഉള്ളി ആയാലും പഴമായാലും അതല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്നതോ ഫ്രൂട്ട്സോ പോലെയുള്ള പല ഐറ്റങ്ങൾ ആ സ്ഥ സാധങ്ങൾക്ക് ഒക്കെ വില കുറയാനും കൂടാനും സാധ്യത ഉണ്ട്

വില കൂടുതൽ വരികയും ചെയ്യും പിന്നെ ഓൺലൈൻ ഷോപ്പിങ്ങിനെക്കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം എന്ന് വെച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ